ഹലോ സർ ആമസോണിൻ്റെ കസ്റ്റമർ കെയർ അല്ലേ ഞാനൊരു ഹെഡ് സെറ്റ് നോക്കുന്നുണ്ടായിരുന്നു ഹെഡ് സെറ്റിൻ്റെ പുതിയ മോഡലുകളിൽ സ്റ്റോക്ക് ഉണ്ടോ ഹെഡ് സെറ്റിനെക്കുറിച്ച് എനിക്ക് അറിവ് കുറവായത് കൊണ്ടാണ് സാർ വിളിച്ച് അന്വേഷിക്കുന്നത് പുതിയ ഇറങ്ങിയ മോഡൽ ഏതെങ്കിലും ഉണ്ടോ ഒന്നിനെക്കുറിച്ച് ഏകദേശം എത്ര രൂപ വില വരും ആ ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് ആ വളരെക്കാലം ഉപയോഗിക്കാൻ സാധിക്കുമോ അതിൻ്റെ ചാർജിങ് കപ്പാസിറ്റിയോ എത്ര മണിക്കൂറ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആ ഈ മോഡല ആണ് സാർ കൂടുതൽ വിറ്റഴിയുന്നത് ഈ മോഡലിൽ വരുന്ന എനിക്ക് വേണമായിരുന്നു സ്റ്റോക്ക് ഉണ്ടോ എങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്യാൻ സാധിക്കുമോ സർ വേറെ എന്തേലും പ്രത്യേകതകളുണ്ടോ ഹെഡ് സെറ്റിന് ഓക്കെ സർ താങ്ക് യൂ